ആ എന്തൊക്കെയാണ് വേണ്ടത് മേഡം ആ ഓക്കേ വരൂ മേഡം നമുക്കാദ്യം ടീ വി നോക്കാം എങ്കിൽ മേഡം ഇതൊക്കെയാണിവിടുത്തെ ടീവി നമുക്കിപ്പോ ഏ സോണിയുടെ ടിവിയുണ്ട് എൽജിടെ ടിവിയുണ്ട് സാംസങ്ങിൻ്റെ ടിവിയുണ്ട് റെഡ്മീട് ടിവിയുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ടീവിയാണ് വേണ്ടേ ആൻഡ്രോയ്ഡ് ടീവിയാണോ അതോ സാധാ ടിവി മതിയോ ആ ഓക്കേ എത്ര ഇഞ്ചിൻ്റെ ടിവിയാണ് വേണ്ടത് മുപ്പത്തി രണ്ടിഞ്ചാണോ അറുപത്തി നാലിഞ്ച് വേണോ നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ച് ടി മുപ്പത്തി രണ്ട് ഇഞ്ച് ടിവി യാകുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപ ഉള്ളില് വരും അറുപത്തിനാല് ഇഞ്ച് ടീവിയാകുമ്പോൾ ഒരു മുപ്പത്തഞ്ച് നാപ്പതിനുള്ളില് വരും ഓക്കേ അറുപത്തിനാലിഞ്ച് നോക്കാലെ എങ്കിൽ നമുക്ക് സാംസങിൻ്റെ നോക്കാം മേഡം സാംസങ്ങിൻ്റെ നല്ലൊരു കമ്പനിയാണ് ഒരു വൺ ഇയർ വാറണ്ടി ഉണ്ട് നമ്മളിതിൻ്റെ ബോർഡിന് എക്സ്ട്രാ വാറണ്ടി കൊടുക്കുന്നുണ്ട്

ഇതു മതിയൊ മേഡം ആ സാംസങ്ങ് നല്ല ടീവിയാണ് നല്ല എച്ച് ഡി ക്ലാരിറ്റി ഉണ്ടാവും ടീവിക്ക് ഈ ടീവി മതിയൊ മേഡം

ഓക്കേ നമുക്കെന്നാൽ ഫ്രിഡ്ജ് നോക്കാം ഫ്രിഡ്ജ് ദേ അവിടെ ഉള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം ഇതൊക്കെയാണ് ഇവിടുള്ള ഫ്രിഡ്ജ് നമുക്ക് ഫ്രിഡ്ജ് ഡബിൾ ഡോറ് വേണോ അതോ സിംഗിൾ ഡോറ് വേണോ ആ ഡബിൾ ഡോറാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടലായിരിക്കും ഒരു നാപ്പത്തഞ്ച് രൂപ വരെ വരും ആ ഡബിൾ ഡോറിൻ്റെയിപ്പോൾ സാംസങ്ങിൻ്റെയും എൽ ജിടെയും ആണ് ഉള്ളത് നമുക്ക് അതിലിപ്പോൾ സാംസങ്ങിൻ്റെ സിൽവെർ കളറുണ്ട് എൽ ജിടെ മെറൂൺ കളറും ഉണ്ട് ആ ഏതാ വേണ്ടേ നമുക്ക് സിൽവർ കളറ് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവിടെയും വെയ്ക്കുമ്പോൾ വീടിൻ്റെ പെയ്ൻറ്റൊന്നും നോക്കണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ കളർനും മാച്ചായിരിക്കും ഇതുതന്നെ നോക്കാല്ലേ നമുക്ക് നേരെ സാംസങ്ങിൻ്റെ നോക്കിയാലോ എൽ ജി നല്ല കമ്പനി തന്നെയാണ് നമക്കിതിൻ്റെ കംബ്രസറിന് വൺ ഇയർ വാറൻറ്റിയുണ്ട് ആ എൽ ജി നോക്കാം ഓക്കേ ഇതാണ് മേഡം എൽ ജിടെ ടീ വി ഇല്ലാ ഫ്രിഡ്ജ് ഡബിൾ ഡോറ് ആ ഇതിലെല്ലാ സ്പെസിഫിക്കേഷൻസും ഉണ്ട് ഇത് ഒര് ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഒരു സെറ്റ് ബോട്ടിലും ഫ്രീ ആയി കിട്ടുന്നുണ്ട് ഉം നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കാൻ വേനൽക്കാലത്ത് ഓക്കേ ഇത് മതി അല്ലെ പിന്നേ നമുക്ക് വാഷിംഗ് മെഷീൻ നോക്കാം വാഷിംഗ് മെഷീൻ മുകളിലാണ് ഉള്ളത് ആണാ ഏ സി അപ്പർത്തെ ഫ്ലോറിലാ ഉള്ളത് നമുക്കങ്ങോട്ട് പോവാം

മേഡം ദാ ഇതൊക്കെയാണ് ഏ സിയുള്ളത് ഇപ്പോൾ ഗോഥറേജിൻ്റെയുണ്ട് വേൾപൂളിൻ്റെയുണ്ട് എൽ ജിടെയുണ്ട് ഈ മൂന്ന് ബ്രാൻഡാണ് ഇപ്പൊൾ ഉള്ളത് നിലവില് നമക്കീ എൽ ജിടെയാണ് കുറച്ച് നാല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊൾ അധികം കംപ്ളേയ്ൻറ്റൊന്നും വെരാത്തൊന്ന് എൽ ജിയും ഏ ഫ്രി ഏസീന്ന് പറയുന്നത് ഇതാണ് എൽ ജിടെയാണ് അതിപ്പോൾ എൽ ജിടെയൊരു ഇരുപത്തയ്യായിരം രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് നല്ലൊരു കമ്പനിയാണ് നാമക്കധികം കറൻറ്റൊന്നും അധികം വലിക്കില്ല എൽ ജിടെ ആകുമ്പോൾ അതുപോലെ തന്നെ അതെ ഇതിന് കമ്പനീന്ന് ഇൻസ്റ്റാളേഷന് ആള് വരും നിങ്ങള് അവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഇൻസ്റ്റാലേഷന് കമ്പനീന്ന് ആള് വരും അവര് വന്ന് സെറ്റ് ചെയ്ത് തന്നോളും ആ ഇൻസ്റ്റാളേഷന് നമ്മളല്ല കമ്പനീന്നാണ് ആള് വരുന്നത് അതിപ്പോൾ എൽ ജീടെ കമ്പനിയിൽ നിന്ന് ആള് വരണം നമ്മുടെ പാലക്കാട് ടൗണീന്ന് എൽ ജീടെ ഷോറൂമീന്നുള്ള ആള് വന്നിട്ട് വേണം ഇൻസ്റ്റാള് ചെയ്യാൻ നമ്മള് വെറും ഡീലറ് മാത്രമാണ് നമ്മളെ ഇതിപ്പോൾ നിങ്ങള് ബുക്ക് ചെയ്ത് എടുത്തിട്ട് പോയി വീട്ടി ഒഡറ് ചെയ്ത് വരണം ബുക്ക് ചെയ്ത് വരണം നമ്മള് നിങ്ങളുടെ അഡ്രസ്സെല്ലാം കമ്പനികാർക്ക് കൊടുക്കും അപ്പോൾ അവിടന്ന് ആള് വന്ന് ഇന്സ്റ്റാള് ചെയ്തോളും ഇനി സാധനങ്ങള് നിങ്ങൾക്ക് വീട്ടിലോട്ട് ഞങ്ങള് കൊണ്ടുവന്ന് തരണമെങ്കിൽ നമ്മള് വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് കയറ്റി വിടും നിങ്ങളിപ്പോൾ വണ്ടി വാടകയൊക്കെ കൊടുക്കേണ്ടി വരും ആ നിങ്ങള് കൊടുക്കേണ്ടി വരും വണ്ടി വാടകയും നിങ്ങള് കൊടുക്കേണ്ടി വരും പിന്നെന്ത് നോക്കണ്ടെ ആ ഓക്കേ അങ്ങനങ്ങ് ചെയ്യാം നിങ്ങള് കൊണ്ടു പോയിക്കോളു അതിപ്പോൾ രണ്ടും സേയ്മന്നെയാണ് നിങ്ങള് വണ്ടി വിളിച്ചാൽ നിങ്ങള് കൊണ്ട് പോകണം അല്ലെങ്കിൽ ഞങ്ങള് വിളിച്ച് കയറ്റി വിടും നിങ്ങള് അവരുടെ വണ്ടി വാടക മാത്രം കൊടുത്താൽ മതി ആ എന്തായാലും നിങ്ങളുതന്നെ വാടക കൊടുക്കണം ആ നിങ്ങള് നേരിട്ട് തന്നെ കൊണ്ടു പോക്കോളുമല്ലേ ഓക്കേ ആ അപ്പൊൾ എൽ ജിടെ ഇത് മതിയൊ എങ്കിൽ നമുക്കെന്നാൽ വാഷിംഗ് മെഷീൻ നോക്കിയാലോ നോക്കുന്നില്ലേ ഇത് മതിയോ ആ ഓക്കേ എങ്കിൽ നമുക്ക് ബിൽ എടുക്കാം വരൂ നമുക്കിപ്പോൾ ടോട്ടലൊരു എമ്പതിനായിരം രൂപ ആയിട്ടൊണ്ട് നമുക്ക് ഇത്രയും ബൾ മൂന്ന് സാനങ്ങളെടുത്തോണ്ട് നമ്മളൊരി പത്തായിരം രൂപ ഡിസ്കൗണ്ട് തരുന്നുണ്ട് അവടപ്പം ഏ സിക്ക് നമുക്ക് ആ ഒരു മൂന്ന് സർവീസ് ഏ സിക്ക് നമ്മള് കമ്പനി പ്രൊവൈഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അത് ആറ് മാസം ആ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഏ സി സർവീസ് ചെയ്യണം അപ്പൊരു മൂന്ന് സർവീസ് നമ്മള് കമ്പനി ഫ്രീ ആയിട്ട് നമ്മള് ഷോറൂമ്ന്ന് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങള് പൈസ കൊടുക്കണ്ടി വരില്ല നിങ്ങളത് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരില്ലാ അതിനു ശേഷം ഉള്ളതിനൊക്കെ നിങ്ങള് സെർവീസ് ചാർജ് കൊടുക്കണ്ടിവരും ഒരു മൂന്ന് സർവീസ് നമ്മള് ഫ്രീ ആയിരിക്കും അപ്പം ഈ പേയ്മെൻറ്റ് എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യുവാണോ അതോ കാ ക്യാഷ് ആണോ ഗൂഗിൾ പേ ചെയ്യേണ് ഓക്കെ ഈ ക്യൂ ആർ കോഡിലോട്ട് അയച്ചാൽ മതി ഓക്കേ താങ്ക് യൂ